ഹലോ ഗ്രാമീൺ ബാങ്ക് അല്ലേ ഇത് ഞാൻ ഒരു ലോണിൻ്റെ ആവശ്യത്തിനായിട്ട് വിളിച്ചതാണെ എനിക്ക് ഒരു ഭവന വായ്പ്പ ആയിരുന്നു എനിക്ക് വേണ്ടത് അതേ അതേ ആ അപ്പോൾ എനിക്ക്

കൊടുക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ എത്ര ശതമാനം ഉണ്ട് ഭവന വയ്പ്പ ഇരുപത്തി അഞ്ചു കൊടുക്കുന്നുണ്ടല്ലേ എനിക്ക് ഒരു പതിനഞ്ച് എങ്കിലും വേണ്ടിവരും ആ അത് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ പണി നടക്കുന്നുണ്ട് വീടിൻ്റെ ഒരു സൈഡില് കുറച്ച് സ്ഥലം കൂട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചാൽ മതിയാവുമായിരിക്കുമല്ലേ

ശരി അപ്പോൾ വേറെ ഇത് പേപ്പറും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ ആധാരം മാത്രം മതിയോ ഓക്കേ എന്നാൽ ശരിയെ ഞാൻ നാളെ വരാം